ഹലോ പബ്ലിക് ലൈബ്രറി ആരാണ് സംസാരിക്കുന്നത് ആ പറഞ്ഞോ അത് നിങ്ങൾക്ക് ഒരു ഐ ഡി വേണം ഇവിടെ അപ്പം ആദ്യം ഐ ഡി രൂപീകരിക്കണം അതിന് ശേഷം ഇവിടുത്തെ മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകം ഏതാണെന്ന് പറയുമ്പം അതിന് അനുസരിച്ച് ഓരോ പുസ്തകത്തിനും ഒരു പ്രത്യേക വില ഉണ്ട് അത് അതിന് നിങ്ങളുടെ ഉത്തരവാദിത്തത്തില് പുസ്തകം എടുത്തിട്ട് പുസ്തകത്തിന് കൊണ്ട്പോകാം തിരിച്ച് കൊണ്ടുവന്ന് തരുമ്പോൾ ആ പുസ്തകത്തിന് യാതൊരുവിധ കേടുകളോ കീറലുകളോ ഒന്നും പാടില്ല അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടങ്കിൽ എക്സ്ട്രാ ഫൈൻ ഉണ്ടായിരിക്കും ഐ ഡി എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ നേരിട്ട് വരാം എല്ലാ പുസ്തകവും ഇവിടെ അവൈലബിളാണ് നിങ്ങൾക്ക് ഐ ഡി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഐ ഡി എടുക്കാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ ഓൺലൈനായിട്ട് ചെയ്യാൻ ഉള്ള സൗകര്യവും ഈ ഐ ഡി എടുക്കാനുണ്ട്

അതെ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് അഞ്ഞൂറാണ് ഫീസ് ബാക്കി പിന്നെ പുസ്തകത്തിന് സെപ്പറേറ്റ് ഓരോ പുസ്തകത്തിന് അനുസരിച്ച് വില വിത്യാസമുണ്ട് മ് ഇല്ല തന്ന് വിടാനുള്ള സൗകര്യമുണ്ട് തന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു കേടുപാടുകളോ ഒന്നും ഇല്ലാതെ തിരിച്ച് കൊണ്ടുവന്ന് തരണമെന്ന് മാത്രം ഉള്ളു കേടുപാടോടെ തിരിച്ച് തരികയാണെങ്കിൽ അതിന് എക്സ്ട്രാ ഫൈൻ ഉണ്ടായിരിക്കും എന്ന് മാത്രം അത് ഒരാഴ്ച്ചയാണ് നമ്മൾ നമ്മൾ സെവൻ ഡേയ്സ് ആണ് സമയം പറയുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് തരണം അത് കൃത്യമായിട്ട് തന്നെ തിരിച്ച് തരികയും ചെയ്യണം നിങ്ങൾ ആ ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരാഴ്ച്ച കഴിഞ്ഞ് വന്നിട്ട് അതൊന്നും കൂടെ പുതുക്കിയാൽ മതി ഒരാഴ്ച്ചത്തേക്കും കൂടെ ആ എന്തോ ഓരോ ബുക്സിനും പൈസയാണ് അപ്പം രണ്ട് ബുക്സിന് പൈസയടച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ബുക്സ്സും തരാം അതിന് സൂക്ഷിക്കുന്ന കാര്യത്തിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിന് കേടുപാടുകൾ ഒന്നും വരുത്തിക്കാതെ വരാതെ നിങ്ങൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ ഫൈൻ ഈടാക്കുന്നതാണ് ബുക്കുകൾ എപ്പോളും എടുക്കുന്നത് ഇരിക്കുന്നത് പോലെ തന്നെ തിരിച്ച് ഏഴ് ദിവസം കഴിയുമ്പം കൊണ്ടുവന്ന് തരണം അതെ ആ

അതുപോലെ തന്നെ ഇത് റിന്യൂ ചെയ്യണമെങ്കിൽ രണ്ടാഴ്ച്ച കഴിയുമ്പം വരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ വന്നില്ലെങ്കിൽ അതിനും ഫൈൻ അടക്കേണ്ടി വരും കേട്ടോ ആ ഓക്കെ എന്നാൽ വരുന്നതിന് മുൻപ് ഓൺലൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് അയച്ച് തരാം അത് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ഓ ശരി ഓക്കെ നേരിട്ട് ഓക്കെ എല്ലാ ഐ ഡി ഐ ഡി പ്രൂഫുമായിട്ട് പോരേ ഓക്കെ താങ്ക്യൂ